ഹലോ പറയൂ അതെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഓക്കേ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ നട തുറക്കും അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞുള്ള പൂജകൾ കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണി അല്ല ആറ് മണിയാകുമ്പോൾ നട തുറക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് നട തുറക്കുക അത് കഴിയുമ്പോഴേക്കും ഭക്തർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ് നട അടച്ച് കഴിഞ്ഞ് അന്നദാനം ഉണ്ട് അന്നദാനത്തിന് അവിടെ പ്രത്യേക ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് അപ്പുറത്തുതന്നെ വേറൊരു ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുതന്നെ മറ്റൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് അന്നദാനം കഴിഞ്ഞ് അപ്പുറത്തേക്ക് തൊഴാം അല്ലെങ്കിൽ തൊഴുത് എല്ലാ ഭാഗവും തൊഴുത് കഴിഞ്ഞ് ദർശനം എല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾക്ക് വേണമെങ്കിൽ അന്നദാന കൗണ്ടറിലേക്ക് പോകേണ്ടതാണ് അവിടെ നിന്ന് പറഞ്ഞാൽ തിരക്കുണ്ട് പക്ഷെ എല്ലാം സംവിധാനം ചെയ്ത് ക്യു എല്ലാം കൃത്യം എല്ലാ രീതിയിലും ആണ് ചെയ്തിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യവും ഉണ്ട് അവിടെ വെള്ളത്തിനായാലും വെള്ള സൗകര്യം കുറച്ച് ദൂരം നടക്കാൻ ഉണ്ടാകുള്ളൂ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാ ഞാൻ ഒരു സമയത്തേക്കുള്ള ഇതൊക്കെ ആക്കി തരാം പൂജകളെല്ലാം ഇത്ര സമയം ആകുമ്പോഴത്തേക്കും തുടങ്ങും രാവിലെ അപ്പോൾ അതുവരെ അവിടെ നിൽക്കേണ്ടി വരും

അതെ അതെ അതെ എസ് എസ് എസ് സാർ അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം അത് കഴിഞ്ഞ് നേരെ നിങ്ങളെ അമ്പലത്തിലേക്കാണ് കൊണ്ട് പോവുക നിങ്ങൾ റൂമിൽ കൊണ്ടുപോയി ഫ്രഷ് ആയി കുളിച്ചെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് തൊഴാൻ കൊണ്ട് വരും അപ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം നിങ്ങളെ തൊഴാൻ നട തുറക്കുന്ന ആ സമയം ആകുമ്പോളായിരിക്കും നിങ്ങളെ എത്തിക്കുക അപ്പോൾ നിങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് അതുകഴിഞ്ഞ് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഭക്ഷണസൗകര്യം ആയിരിക്കും അവിടെ തൊട്ടടുത്തുതന്നെയാണ് ഭക്ഷണത്തിനുള്ള കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് പോകാവുന്നതാണ് വേറെ എന്തെങ്കിലും അറിയാൻ ഉണ്ടോ സാർ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ ആണ് നൂറ് ഇരുന്നൂറ് മീറ്ററെ ഉള്ളൂ ടൗണിൽ നിന്ന് അത്രേയുള്ളു നിങ്ങൾക്ക് പെട്ടെന്ന് ദർശനം കഴിഞ്ഞ് ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് സാർ നിങ്ങളൊരു എത്തുന്ന സമയം വെച്ച് ഞങ്ങൾ കണക്കാക്കി അവിടെ നിങ്ങളെ അതായത് നട തുറക്കുന്ന സമയത്ത് നിങ്ങളെ അവിടെ എത്തിക്കുന്നതാണ് സാർ ഓക്കേ ഓക്കേ ഒക്കെയാണ് സാർ നിങ്ങൾ വരുന്നത് എപ്പോണോ അത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും നട തുറന്ന് ഇടുന്നതാണ് അത് കഴിയുമ്പോളാണ് പിന്നീടുള്ള കാര്യങ്ങൾക്കായി നട അടയ്ക്കുന്നത് അപ്പോൾ അത് വരെയും നിങ്ങൾക്ക് സമയം ഉണ്ട് ഓക്കേ സാർ ശരി താങ്ക് യൂ